ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളിൽ വെച്ചിട്ട് എനിക്ക് താല്പര്യം തോന്നിയിട്ടുള്ള ഒരു വിഷയം എതാന്ന് വെച്ചാല് ശ്രീരാമ ജന്മ ഭൂമിയും അതിനോടനുബന്ധിച്ച് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും ഇതൊക്കെ തന്നെയാണ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കാര്യമാണിത് അയോദ്ധ്യയിൽ ശ്രീരാമ ക്ഷേത്രം വേണമെന്നുള്ളത് ഓരോ ഹിന്ദുക്ക ഹിന്ദുവിൻ്റെയും ആഗ്രഹമായിരുന്നു ഒരുപാടാൾക്കാര് അതിനുവേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടുള്ളതാണ് അങ്ങനെയിരിക്കുമ്പൊഴാണ് നമുക്ക് ഒരു ബാ ഒരു ഒരുപാട് വർഷം മുന്നേ ബാ ബാർബർ വന്ന സമയത്ത് പല അമ്പലങ്ങളും പൊളിച്ച് അത് അല്ലെങ്കിൽ അതിന് അതുപോലെ തന്നെ നിലനിർത്തി അതിൻ്റെ മേൽക്കൂടി തന്നെ പള്ളി ഉണ്ടാക്കുകയും അങ്ങനെ അവിടെ പല പുരാതനങ്ങളായ അമ്പലങ്ങളും നമുക്ക് നില ഇപ്പോൾ നിലവില്ലാതായിരിക്കയാണ് അപ്പം ഇതൊരു വിഷ ഒരു വിവാദ വിഷയമായിട്ട് കുറെക്കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ടിലോ മറ്റോ ആണ് ഈ ഈ പ്രശ്നങ്ങളും അതിൻ്റെതും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇതില് എത്തുന്നത് വലിയൊരു സംഭവ വികാസത്തിലെത്തുന്നത് ബാബരി മസ്ജിദ് എന്ന പേരിലറിയപ്പെട്ടിരുന്ന പള്ളി പൊളിക്കുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് ഹർത്താലും ഒരുപാട് ആൾക്കാർക്ക് ജീവത്യാഗം ചെയ്യേണ്ടി വരികയും പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ലഹളയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും കൊല്ലലും ഒക്കെ നടന്നായിരുന്നു പിന്നെ ആ സ്ഥലം ഗവൺമെൻ്റ് ഏറ്റെടുക്കുകയും അതില് അതി അതിന് അതിൽ ശ്രീരാമ ക്ഷേത്രം വേണമെന്നും അല്ല ബാബരി പള്ളി പുനഃ സ്ഥാപിക്കണമെന്നും വളരെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് അത് പിന്നെ കോടതിയിലെത്തുകയും ഒരുപാട് വർഷം കോടതിയിലതിൻ്റെ കേസുണ്ടാവുകയും അവസാനം നമ്മുടെ പിന്നെ ഹിസ്റ്ററിയിൽ അത് ശ്രീരാമ മന്ദിരമാണ് ഉണ്ടായിരുന്നതെന്നുള്ള അറിയുന്നതു കൊണ്ട് അങ്ങനൊരു ഇത് പ്രസക്തി ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഒരു വാദത്തിനു പ്രസക്തി ഇണ്ടായതുകൊണ്ട് അതും ശ്രീരാമ ക്ഷേത്രം നിർമ്മിക്കാനായി വിട്ടു നൽകുകയും അപ്പോൾ അത്രയും സ്ഥലങ്ങൾ ശ്രീരാമൻ പള്ളിയുള്ള സ്ഥലം ശ്രീരാമ ക്ഷേത്രത്തിനായി നൽകിയപ്പോൾ അതിനു പകരമായിട്ട് ഒരു വലിയൊരു എത്ര പത്തേക്കറെങ്ങാണ്ടോ സ്ഥലം പിന്നെ പള്ളിക്ക് വേണ്ടിട്ട് വേറെ നൽകുകയും ചെയ്തിരുന്നു അങ്ങനെ ആയിരത്തി രണ്ടായിരത്തി ഇരുപത് ഇരുപതോ ഇരുപതിന് ശേഷമോ ആയിട്ട് നമ്മുടെ ശ്രീരാമ ക്ഷേത്രം പണിയാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് പണിയുന്ന സമയത്ത് ഓരോ വീട്ടിലും രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാ ഭാഗത്തേക്കും അതിന് അതിനു വേണ്ടിട്ട് ആൾക്കാര് വരികയും അതിൽ അതിന് കോൺട്രിബ്യുട്ട് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ വീടുകളിലും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപാന്ന് പറഞ്ഞ് സം പിന്നെ വാങ്ങുകയും അതൊക്കെ കൊണ്ടുപോയി ആ ശ്രീരാമ ക്ഷേത്രത്തിനു വേണ്ടിട്ടുള്ള ചിലവിനായിട്ടെടുക്കുകയും ഒരു കല്ലെങ്കിൽ ഒരു കല്ല് ഒരു വീട്ടിൽ നിന്ന് ഒരു കല്ലെങ്കിൽ ഒരു കല്ല് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുകയും അങ്ങനെ എല്ലാവരുടേയും എല്ലാ ആൾക്കാരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ളൊരു പ്രയത്നം കൊണ്ട് ശ്രീരാമ ക്ഷേത്രം ഉയരുകയും അത് ഈ ജനുവരി ഇരുപത്തിരണ്ടിന് അതിൻ്റെ ഉൽഘാടനം നമ്മുടെ പ്ര പ്രധാനമന്ത്രി ആയ മന്ത്രി ശ്രീ നരേന്ദ്ര മോദി ഉൽഘാടനം ചെയ്യുകയും ചെയ്തു അപ്പം ഒരിക്കലെങ്കിലും അയോദ്ധ്യ സന്ദർശിക്കണമെന്നും ശ്രീരാമ ജന്മ ഭൂമിയിൽ പോകണമെന്നും പുതിയ ശ്രീരാമ ക്ഷേത്രത്തിൽ പോയി തൊഴണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കൂടാതെ ഇപ്പോൾ സമകാലിക സംഭവത്തെ കുറിച്ച് പറയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷമങ്ങളേറിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത് സ്ത്രീ പീഡനം സ്ത്രീധനം സ്ത്രീധനത്തിൽ ഉണ്ടാവുന്ന പിന്നെ ആൾക്കാര് അമ്മായിയമ്മ പിന്നെ ഭർത്താവും കൂടി കുട്ടികളെ പെൺകുട്ടികളെ കൊല്ലുകയും പിന്നെ ബസിൽ പോയാലായാലും ട്രെയിനിൽ പോയാലായാലും എവിടെയും വെച്ച് നടക്കുന്ന പീഡനം ഇതൊക്കെ വളരെ വിഷമങ്ങളായിട്ട് തന്നെ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതിൽ നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാല് പല ആൾക്കാർക്കും പിന്നെ പല നിയമ യുദ്ധത്തിനൊടുവിലും പല ആൾക്കും പിന്നെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുന്നുള്ളതാണ് നമ്മുടെ കേരള പോലീസ് അതിനു വേണ്ടിട്ട് ഒരുപാട് പ്രയത്നിക്കുന്നുന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഈ ഇങ്ങനെയുള്ള ഈ ദുഷ്കർമ്മികളെ പിടിക്കാനായാലും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടക്കാനായാലും എല്ലാത്തിനും മുൻപന്തിയിൽ നമ്മുടെ പോളിസി ഉണ്ടെന്നുള്ളത് സന്തോഷം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെത്തന്നെ ഇപ്പം കാണുന്നൊരു വലിയ ദുശ്ശീലം എന്തെന്ന് പറഞ്ഞാല് മയക്കുമരുന്നാണ് മയക്കുമരുന്നിനടിമപ്പെട്ട് നമ്മുടെ ചെറി ചെറിയ കുട്ടികളടക്കം ചെറിയ ക്ലാസ്സിലെ സ്കൂള് എൽ പി മുതല് ഹൈസ്കൂൾ ആകട്ടെ എല്ലാ കുട്ടികളിലേക്കും മയക്കുമരുന്നെത്തിക്കാനുള്ള മയക്കുമരുന്ന് സംഘത്തിൻ്റെ ഒരു കഴിവ് അവരെങ്ങനെ നുഴഞ്ഞു കയറി അവിടെ എത്തുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല ആർക്കും അറിയാൻ പറ്റില്ല പക്ഷെ അത് കണ്ടുപിടിച്ചാൽ തുറന്നു പറയാൻ ആരും റെഡിയുമല്ല പിന്നെ കുട്ടികളെ പിടിച്ചാലോ അവർക്ക് ലൈഫ് ലോങ്ങ് ഒരു ശിക്ഷ തന്നെ കിട്ടുമെന്നുള്ളതുകൊണ്ട് മാതാപിതാക്കളായാലും എല്ലാവരും അതൊളുപ്പിച്ച് വെക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഈ മയക്കുമരുന്ന് മാഫിയകളെ എല്ലാവരും അറിയുകയും അവരിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി പൊലീസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന